ഹലോ ഇത് പുൽപ്പള്ളിയിലെ മറ്റേ ടൂറിസ്റ്റ് ഗൈഡ് അല്ലെ ആഹ് അതെ ആഹ് എനിക്ക് അവിടുത്തെ സീത ദേവി അമ്പലത്തിൻ്റെ കുറച്ചൊന്ന് ഡീറ്റെയിൽസ് അറിയാനായിരുന്നു ഓക്കെ ഓക്കെ

ഓക്കെ ഓക്കെ

ഓക്കെ

ഓക്കെ

ഓഹ്

ഓക്കെ ഓക്കെ അതെ ഞങ്ങൾ ഏഹ്

ആഹ് പിന്നെ ഞങ്ങൾ ഇവിടെ രാത്രി കയറും രാവിലെയൊരു ആറ് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും ഞങ്ങൾ പുൽപ്പള്ളി എത്തും അപ്പോൾ നിങ്ങൾക്ക് വന്ന് പിക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടോ

ഓക്കെ ഓക്കെ

ഓക്കെ പിന്നെ നമ്മുടെ ടൗണിൽ നിന്ന് പുൽപ്പള്ളി ടൗണിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാവും അങ്ങോട്ട്

അത്രയേയുള്ളു ഓഹ് നൈസ് ഓക്കെ ഓക്കെ അത് അപ്പം ഞങ്ങൾ നാളെ രാത്രി കയറും നാളെ രാവിലെ എത്തും അപ്പം ആ സമയം നിങ്ങൾക്ക് ഒക്കെ ആണോ ആഹ് ഓക്കെ

ഓക്കെ താങ്ക് യു അപ്പം നമുക്ക് അവിടെ വന്നിട്ട് കാണാം ഓക്കെ ഓക്കെ താങ്ക് യു